ഇന്നിപ്പോൾ പ്രേക്ഷകരൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ രീതിയിലുള്ള പരിപാടികളെന്നൊക്കെ പറഞ്ഞാൽ നേരിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല അതു തന്നെ ഇതിനകത്ത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ആറ്റുകാൽ പൊങ്കാല കണ്ടിട്ടുണ്ട് ഓണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഓണത്തിന് വേണമെങ്കിൽ പാട്ട് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഓണഗാനങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനു പുറമെ ഇപ്പോഴെന്ന് പറയുമ്പോൾ അങ്ങനെ ആളുകളൊന്നും കൂടുതലായിട്ട് അങ്ങനെ പരിപാടിയിലേക്കൊന്നും പോകാത്ത ഒരു പ്രകൃതത്തിലുള്ളവരാണ് കാലം മാറിയതോടുകൂടി അങ്ങനെ നേരിട്ടുള്ള പരിപാടികളൊക്കെ ഒരുപാടൊക്കെ കുറഞ്ഞൊക്കെ പോയി എന്നാലും നമ്മളിപ്പോൾ നേരിട്ടല്ലാണ്ട് അപ്പോൾ ടി വികളിലൂടെയൊക്കെയാണ് കൂടുതലും പ്രോഗ്രാംസൊക്കെ കണ്ടുവരുന്നത് അപ്പോൾ ടി വി ആണെ ഇപ്പോൾ സംഗീത പരിപാടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ പറയുകാ സ്റ്റാർ സിംഗർ അത് വലിയൊരു പ്രോഗ്രാമായിരുന്നു ഏഷ്യാനെറ്റിൽ സ്റ്റാർ സിംഗറെന്ന് പറയുന്നൊരു പ്രോഗ്രാം വന്നിരുന്നു അതിലൊരുപാട് പേര് പാടാൻ വന്ന് നമ്മളതൊക്കെ ഡെയിലി കാണാറുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് വെണ്ടിയിട്ട് തന്നെ ഇപ്പോൾ എന്താ പറയുക ഫ്ളവെഴ്സിൽ ടോപ് സിംഗേഴ്സ് അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നൃത്തത്തിനായിക്കോട്ടെ ഗാനത്തിനായിക്കോട്ടെ എല്ലാറ്റിനും ഇപ്പോൾ ടെലിവിഷനിലൂടെ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നതു കൊണ്ട് എല്ലാവരും തന്നെ ആ പ്രോഗ്രാമിനൊക്കെ വലിയ വലിയ സമ്മാനങ്ങളൊക്കെ നേടിയെടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ഇപ്പോൾ കണ്ടു വരുന്നത്